ആളുകളുടെ ജീവിതനിലവാരത്തെ സ്വാധീനിക്കാൻ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കളികളെ കൊണ്ട് സാധ്യമാകുന്നുണ്ട് എന്നാണ് എനിക്ക് അഭിപ്രായം ഉള്ളത് ഇതിൽ എന്തെന്ന് വെച്ചാൽ നമ്മള് കളിക്കുന്ന കളികള് ഇപ്പോൾ ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഏത് കളിയായാലും അത് ആളുകളുടെ ആത്മവിശ്വാസത്തെ ഉണർത്തുവാനും വെല്ലുവിളികളെ നേരിടുവാനും അവരുടെ മനസ്സിനെ സജ്ജമാക്കുന്നുണ്ട് അതുപോലെത്തന്നെ അവരുടെ മാനസികസമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ എല്ലാം ഈ കളികൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അവര് കളിക്കുമ്പോൾ അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാം ഇല്ലാതാവുകയും അവർക്കൊരു പുത്തൻ ഉണർവ് നേടാൻ കളികള് സാധ്യമാകുന്നുണ്ട് അതുപോലെത്തന്നെ കളികളിലെ ഒരു നേതൃത്വം നേതൃത്വഗുണം കിട്ടുവാനും ഈ കളികൾ സാധ്യമാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുപോലെത്തന്നെ നമ്മളീ കളി നല്ല കളിക്കാർക്ക് കൂടുതൽ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുന്നുണ്ട് കാരണം അവർക്ക് മുന്നേറാനും പുതിയ പുതിയ രീതിയിലേക്ക് മാറുവാനും മുന്നോട്ടു പോകുവാനും ഈ കളികളെ കൊണ്ട് സാധ്യമാകുന്നുണ്ട് വളരെയധികം ഉയര ഉയരങ്ങളിലേക്ക് കൊണ്ട് പോകാൻ ഈ കളികളെ കൊണ്ട് സാധ്യമാകുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ഒരു കളിയിൽ നല്ല നല്ലൊരു ഫുട്ബോൾ കളിക്കാരനെ ഇപ്പോൾ എന്താ പറയുക ദേശീയ ടീമിലേക്ക് എത്തുവാനും ക്ലബ്ബുകളിൽ കളിക്കാനും സാധിച്ചാൽ അത് അവരുടെ ജീവിത നിലവാരത്തെ വളരെയധികം സ്വാധീനിക്കും കാരണം അവർക്ക് ആ കളി കൊണ്ട് കൂടുതൽ സാമ്പത്തികമായിട്ടും സാമ്പത്തികപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അത് അവരെ അവരെ മാത്രമല്ല സമൂഹത്തിനും നല്ല രീതിയില് ഉയർത്തിക്കൊണ്ട് വരാൻ ഈ കളികളെ കൊണ്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്